കൂടുതലായിട്ടും അവധി സമയത്താണ് ഞങ്ങൾ ടൂർ പോകാറുള്ളത് വേളാങ്കണ്ണിക്ക് പോയി നല്ല രസമാണ് വേളാങ്കണ്ണിക്ക് പോക്ക് ഞങ്ങൾ പോയ വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെയെല്ലാം കണ്ട് പളളിയിലെല്ലാം പോയി രണ്ട് മൂന്ന് ദിവസം താമസിച്ചിട്ടാണ് പോകുന്നത് അതുകഴിഞ്ഞിപ്പം ഇവിടങ്ങളിലാണെങ്കിലും പള്ളി വഴിയൊക്കെ പോകുന്നുണ്ട് ഓരോ പള്ളി ഒരു പള്ളി പോകുന്നുയെന്നു പറഞ്ഞാൽ ഞങ്ങളെ മക്കളും മരുമക്കളും കുഞ്ഞുമൊക്കെയായിട്ട് പോകുന്ന അതാണ് ഏറ്റവും വലിയ സന്തോഷം ഒറ്റയ്ക്ക് നമ്മൾ പോയി ശകലം എന്നാൽ ഒന്ന് ഒരു ദിവസം പോയി അല്ലെങ്കിൽ കുറച്ചു നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടന്നങ്ങോട്ട് മടുത്ത് പോകുന്നപോലെ മടുപ്പായി പോവും എല്ലാവരും കൂടെക്കൂടി സന്തോഷകരമായിട്ട് പോവുകയാണെങ്കിൽ അതാണ് വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ചു സന്തോഷിച്ച് പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടെങ്കിൽ അതുമൊക്കെ കണ്ട് വളരെ സന്തോഷകരമായിട്ട് പോയി കണ്ടു വരാൻ ഞങ്ങൾ ഒരു പള്ളി കണ്ടു നമ്മൾ ചിലനേരം ഇച്ചിരി വിശ്രമിച്ച് അതു കഴിയുമ്പോഴത്തേക്ക് അതിനടുത്ത പള്ളികൾ കാണാൻ പോകും പിന്നെ അവിടെ ഏതെങ്കിലും വേറെ പ്രത്യേകം പ്രത്യേകമായിട്ട് സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിൽ ഞങ്ങൾ ആ സ്ഥലങ്ങൾ ഒക്കെ കയറിക്കാണും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കണ്ട് കണ്ട് കണ്ട് കണ്ട് കൂടുതലായിട്ട് ഞങ്ങളെല്ലാവരും കൂടെക്കൂടി ഒന്നിച്ചാണ് യാത്ര പോകുന്നത് എല്ലാ സ്ഥലത്തും തന്നെയെന്നു പറഞ്ഞാൽ അങ്ങനെയാണ് പോകുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായൊരു സമയവും അതാണ് അതാണ് ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യവും